ഹലോ ആ എടാ പരിപാടി ഒന്നുമില്ല വെറുതെ ഇരിക്കുകയാണ് ആണോ ആ റെക്കമെൻ്റ് ചെയ്തോ ആ നമുക്ക് കാണാം

ആ ശരിയാണ് നമ്മൾക്ക് പിന്നെ കൂടുതലായിട്ട് ഒ ടി ടി റിലീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ടി വി അങ്ങനെ കാണാൻ സമയവും ഇല്ലല്ലോ

പിന്നെ ഹോളിഡേയ്സ് വരുമ്പോൾ തന്നെ നമ്മൾ ടീ വിയിനെ കുറിച്ചല്ലേ ആലോചിക്കുന്നത് അതുമല്ല പ്രത്യേകിച്ച് വെക്കേഷൻ വരുമ്പോൾ വീട്ടിലെ ടി വി എന്താ ചാർജ് ചെയ്യും പിന്നെ കേബിളൊക്കെയായിരുന്നല്ലോ പണ്ട് പിന്നെ നമ്മളൊരുപാട് ടി വി ഷോസ് കാണും കൊച്ചു ടി വി പിന്നെയെന്താ ഏഷ്യാനെറ്റിലെ മൂവീസ് ന്യൂസും ആ അതെ ഓണം ക്രിസ്മസൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ പുതിയ ഫിലിംസൊക്കെ കാണുന്നത് അതിൽ ആ അതെ അത് ഒരു ഫാമിലി ഡൈനാമിക്സിനെ തന്നെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ടും ബെറ്ററാണ് എന്നാലും നമ്മൾ കുറച്ച് ആ ഒരു ഫാമിലി ഡൈനാമിക്സും അതുപോല തന്നെ കുറച്ച് ന്യൂസൊക്കെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് കാണുമ്പോൾ പാരൻ്റ്സിന് അറിയാവുന്നുള്ള കൂടെ കുട്ടിക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ പറ്റും ന്യൂസിനെക്കുറിച്ച് ജി ക്കെനെയൊക്കെ പക്ഷേ ഇപ്പം നമ്മൾ ആ ഒരു ഒ ടി ടി മാത്രമാവുമ്പോൾ നമ്മൾ മാത്രമൊതുങ്ങി പോവും ആക്സിഡേറ്റഡാവുന്നുണ്ട് അപ്പം അത്രയും ഷെയറിംഗ് മെൻ്റാലിറ്റിയൊക്കെ കുറയും ഫാമിലി ഡൈനാമിക്സ് അതുപോലെ തന്നെ കുറയും

അതെ ആ ശരി എടാ ആ ബൈ